കോഴി വളർത്തുന്നെ നല്ലൊരു ബിസിനസ്സാണ് നമുക്ക് കോഴിയെ കൊണ്ടു നല്ല ആദായം ഉണ്ട് നമുക്ക് കോഴിയെ കൊണ്ട് നമുക്ക് എന്താണ് മുട്ട കിട്ടും മുട്ട കിട്ടും നമുക്ക് പുറത്ത് നല്ല ഇതു കിട്ടും പക്ഷെ അതുങ്ങൾക്ക് പനിയൊന്നും വര നമ്മൾ അത്രയും കരുതലോടെ വേണം അതുങ്ങളെ വളർത്താനായിട്ടു മഴയൊക്കെ നനഞ്ഞു കഴിയുമ്പോൾ അതുങ്ങൾക്ക് പനി പിടിക്കും പിന്നെ അതുങ്ങൾ ചത്തു പോകും പിന്നെ കൂടുതലും മൃഗ ഇത് അതായത് ഉണ്ട് കീരിയൊക്കെ ഉണ്ട് കീരിയും പട്ടിയൊക്കെ പിടിക്കും അതുങ്ങളെ അതു കൊണ്ടൊക്കെ അതിൻ്റെ രീതിയിൽ നമ്മളെല്ലാം നല്ല കെയറിങ്ങോടു കൂടിയാണ് അതുങ്ങളെ അങ്ങ് കൂട്ടിലിട്ട് വളർത്താനായിട്ട് നമ്മളില്ലാത്തപ്പോഴായിരിക്കും ഇതുങ്ങളെ കൂടുതലും അന്യ മൃഗങ്ങൾ വന്നു ഇതുങ്ങളെ വന്നു വേട്ടയാടി കൊല്ലുന്ന അങ്ങ് കൊന്ന് കളഞ്ഞു കഴിയുമ്പോഴായിരിക്കും അങ്ങനെയൊക്കെ ഒത്തിരി നമുക്ക് നാശങ്ങളുണ്ടാകാം പക്ഷെ അതു നല്ലതാണ് കോഴികളെ വളർത്തിയാൽ കൂടുതലും നമുക്കൊരു വലിയ ഒരു പ്രയോജനം ഉള്ള കാര്യങ്ങളാണ് നല്ല നല്ലൊരു വരുമാന മാർഗ്ഗമാണ് അതെ കൊണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക അതുങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ മറ്റു മൃഗങ്ങൾ വന്ന് ഉപദ്രവിക്കാതിരിക്കാൻ നമ്മൾ അതിനുള്ള സുരക്ഷ ചെയ്യുക കോഴിക്കു വേണ്ടി എന്തോ ആ കോഴിക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ അതായത് അതുങ്ങൾക്ക് കോഴികൾക്കൊക്കെ ഇങ്ങനെ ബലം കിട്ടാൻ വേണ്ടി അതിൻ്റെ മരുന്നുകളൊക്കെ ഉണ്ട് നമുക്ക് മെഡിക്കൽ സ്റ്റോർ ചെന്നു പറയുകയാണെങ്കിൽ അതിൻ്റെ അതു പറഞ്ഞു മരുന്നു മേടിക്കാം അപ്പോൾ അതുങ്ങൾ ആവശ്യത്തിനു നമുക്ക് മുട്ടകൾ തരും പിന്നെ നമ്മളെ പോലെ മനുഷ്യരെ പോലെ തന്നെയാണ് അതുങ്ങളെ അവസ്ഥകളും കുറേ നാൾ കഴിയുമ്പോൾ അതുങ്ങൾക്ക് എല്ലുകൾക്കെല്ലാം ബലം കുറയും അപ്പം അതിൻറ്റേതായ മരുന്നുകളൊക്കെ ഉണ്ട് നമ്മളത് പറഞ്ഞു മേടിക്കാമെങ്കിൽ അതുങ്ങൾ കൂടുതലും കുറച്ചു നാളും കൂടി നമുക്ക് അതുങ്ങളെ കൊണ്ട് ആദായം പറ്റാൻ പറ്റും പിന്നെ നമ്മളെത്രത്തോളം അതുങ്ങളെ സുരക്ഷിതമായിട്ടു നോക്കി കൊണ്ടു നടക്കുന്നോ ഒരു കുഞ്ഞിനെ എങ്ങനെ കൊണ്ടു നടക്കുന്നോ അതെ അങ്ങനെ വേണം നമ്മളതുങ്ങളെ വളർത്താനായിട്ടു വളർത്തി എടുക്കാനായിട്ടു വളർത്തി എടുത്താൽ നമുക്കൊത്തിരി ഒത്തിരി നല്ല പ്രയോജനപ്പെടുത്താം അതുങ്ങളെ മുട്ട വെച്ചു വിരിയിച്ചു കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാം കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ അതുങ്ങളെ എന്താ പറയുക വളർത്തിയെടുക്കാൻ പുറത്തു നമുക്ക് കൊടുത്താൽ നല്ല സൈഡ് ബിസിനസ്സായിട്ട് കൊണ്ടു നടക്കാനൊക്കെ പറ്റും പിന്നെ അതുങ്ങൾ കോഴി ചത്തു പോകും ഇപ്പം കൂടുതലും മഴ സമയമുണ്ട് കൂടുതലും നമുക്ക് കോഴിയും മഴ നനയുമ്പോൾ കൂടുതലും ചത്തു പോകുകയാണ് അതു ചത്തു പോയിക്കഴിഞ്ഞാൽ നമുക്കത് ഒത്തിരിയും എന്താ പറയുക വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് കൂടുതലും ഇപ്പം കോഴികൾ ചത്തു പോകുകയാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയ്ക്ക് നമുക്കതുങ്ങളെ അതുങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള ഇതില്ല കഴിവു കുറവാണ് അതുങ്ങൾക്ക് അങ്ങ് കൂടുതലായിട്ടങ്ങ് അപ്പം അതിൻറ്റേതായ നമുക്കൊത്തിരിയും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യവും കോഴികളൊക്കെ ചത്തു പോകുക താറാവുകൾ ചത്തു പോകുന്നു ഒത്തിരിയും മൃഗ ജാതികളെല്ലാം ചത്ത് അങ്ങ് പോകുകയാണ് അപ്പോൾ ഇതൊക്കെ ആകുന്നുണ്ട് കോഴിയെ കുറിച്ച്